ആ ചേച്ചി ആ അത് എന്താണെന്ന് വച്ചാൽ കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷെ വേറ ഒന്ന് രണ്ട് സ്ഥലവും കൂടി പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് വരാൻ ഉള്ള ഒരു താമസം അതാണ് ഇണ്ടായത് ആ അത് ആ ഒരു വേറെ രണ്ട് സ്ഥലത്ത് ഉണ്ടായിരുന്നു പിന്നെ എന്താ പ്രശ്നം ഫ്രിഡ്ജിന് അതെ ഒന്ന് ബാക്കിൽ നിന്ന് ആണോ ഉള്ളിൽ നിന്നോ എവിടെ നിന്നാണ് വരുന്നത്

ഈ മറ്റെ പൊട്ടണപോലെ ആണോ അതോ ഈ നമ്മൾ സാധാരണ ഈ ഈ വിസിൽ അടിക്കണ അങ്ങനത്തെ എന്തെങ്കിലും സൗണ്ട് ആണോ എങ്ങനത്തെ സൗണ്ടാണ് വരണത് ഈ പടക്കം പൊട്ടിക്കണപോലെ ടക്ക് അങ്ങനെ ആണോ വരണത് ആ അതെ ആ ആ ഓക്കെ ഞാൻ ഒരു മിനിറ്റ് അപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ നിന്ന് ആയിരിക്കും അല്ലെ അതോ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് അല്ല അല്ലെ ബാക്ക് സൈഡിൽ നിന്ന് ആണ് അതെ ആ നിങ്ങൾ ഓവർലോഡ് എന്തെങ്കിലും വച്ചിട്ട് ഉണ്ടായിരുന്നോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൂടുതൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ആ ആ ഓക്കെ ആ ആ ആ അതെ അല്ല നിങ്ങൾ മറ്റെ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും വീഴുകയോ തട്ടുകയോ വെള്ളം അറ്റ് പോവുകയോ അങ്ങന എന്തെങ്കിലും ചെയ്തോ അതല്ല ആ അതിൻ്റെ മറ്റെ കൂളെൻ്റിൻ്റെ ആ ബോക്സ് ഉണ്ടല്ലൊ അതിൻ്റ ഉള്ളിലേക്ക് എങ്ങാനും വെള്ളം വീഴുകയോ അല്ലെങ്കിൽ വല്ല പൊടി ആവുകയോ എന്തെങ്കിലും സാധനങ്ങൾ വീഴുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ല കുട്ടികൾ ആരെങ്കിലും കളിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലോ ഇല്ല അല്ലെ അതെയല്ലേ ആ ഞാൻ ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ഇതാ ടൂൾ ബോക്സ് എടുത്തിട്ട് ഇപ്പം വരാം കേട്ടോ